നമുക്കിപ്പോൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലെന്ന് വച്ചു കഴിഞ്ഞാൽ ഒന്ന് മാനന്തവാടിയുണ്ട് ദ്വാരകയുണ്ട് അതുപോലെത്തന്നെ എടവകയുണ്ട് മൂന്ന് സ്ഥലത്തും ഉണ്ട് പക്ഷേ കുറച്ചും കൂടി കടുപ്പത്തിൽ തോന്നുന്നത് എന്ത് വച്ചാൽ മാനന്തവാടിയാണ് വണ്ടിയില്ലാത്തവർക്കൊക്കെ വല്ലാത്ത ഇടങ്ങേറാണ് ആ ആശുപത്രി മേലോട്ട് കയറിപ്പോകണം കുറച്ച് ദൂരം ഉണ്ട് വണ്ടി ഉള്ളവർക്ക് എളുപ്പമാണ് പിന്നെ അതൊരു മെഡിക്കൽ കോളേജ് കൂടി ആണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ആശുപത്രിയാണ് പിന്നെ നമുക്ക് പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് കുറേ ദൂരം പോകണം കൂടുതൽ മൂന്ന് നാലഞ്ച് കിലോമീറ്ററൊക്കെ പോകണം എന്നാൽ മാത്രം പഞ്ചായത്തിൽ എത്തുള്ളൂ അതേപോലെ ഇവിടൊരു നല്ലൊരു ബാങ്കില്ല അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് സർക്കാരിൻ്റെ എന്ന് വച്ചു കഴിഞ്ഞാൽ നല്ലതെന്ന് വച്ചു കഴിഞ്ഞാൽ ആകെയുള്ളത് സർക്കാരിൻ്റെ ആരോഗ്യ കേന്ദ്രം തന്നെ ഹോസ്പിറ്റൽ ആകെ ടൗണിൽ ഇവിടെയാണ് ഉള്ളത് അതിലും പിന്നെ വമ്പൻ ക്യൂ ഒക്കെ ആയിരിക്കും ഒ പിയിലൊക്കെ ഒരു ഡോക്ടറൊക്കെയുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ഡോക്ടറൊക്കെ ഉണ്ടാവണം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ നാട്ടിൽ നല്ല ഉപകാരമായിരിക്കും